ഹലോ ആ ഹലോ

ആ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആ പറഞ്ഞോളു

ട്വെൻടി നയണാ ഞാനൊന്ന് ഞാനൊന്ന് അ ഞാനൊന്ന് നോക്കട്ടേ ഇല്ലാട്ടോ ട്വൻടി നയണ് വേറെ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല

ടൈമിപ്പം പത്ത് ടു പതിനൊന്ന് ആ ഒരു ടൈമിലായിരിക്കും കുറച്ചൂടെ നല്ലത് ഇരുപത്തി ഒൻപതാം തീയതി അല്ലേ ഒന്ന് നോക്കട്ടെ ഞാൻ ടൈമ് കറക്റ്റാണോന്ന് നോക്കട്ടെ ടൈമ് പത്ത് ടു പതിനൊന്ന് ആ അതെ അതെ ആ സമയത്തിൽ പാട്ട് കുർബാന ആ

പെണ്ണും ചെക്കനും ഒരു ഒൻപതര ഒക്കെ ആകുമ്പോഴ്ത്തേക്കും എത്താം നമുക്കൊരു ഒരു ഒൻ ഒരു മണിക്കൂറിനടുത്ത് നമുക്ക് പാ കുർബാനയിണ്ടാവും അതായത് ഒരു പത്തര വരെ അത് കഴിഞ്ഞിട്ട് പത്തര പതിനൊന്നല്ല അപ്പം അതിൻറ്റുള്ളിൽ നമുക്ക് വേണമെങ്കിൽ കെട്ടാം കുഴപ്പൊന്നുല്ല ആ ഒരു മണിക്കൂർ മാക്സിമം കുർബാനയിണ്ടാവും അത് കഴിഞ്ഞട്ടാണ് ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക പതിനൊന്ന് മണി ആകുമ്പോഴ്ത്തേക്കും ഫുള്ള് കമ്പ്ലീറ്റാവും

ആ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണേൽ കൊടുക്കാം ഇവിടത്തെ ഓഡിറ്റോറിയോം കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പോന്നുല്ല ഇപ്പം നിങ്ങൾക്കിപ്പം ഓഡിറ്റോറിയത്തിന് കറക്റ്റ് അറിയില്ല അതിവിടുത്തെ വേറൊരു മാനേജ്മെൻറ്റാണ് നോക്കുന്നത് അവരോട് ഞാനൊന്ന് ചോദിച്ചിട്ട് ഞാൻ മേഡത്തിനെ വിളിക്കാം അതിൻ്റെ കാര്യം ഓഡിറ്റോറിയത്തിൻ്റെ പേയും കാര്യങ്ങളൊക്കെ പക്ഷേ ആ ഓക്കെ ഞാൻ ചോദിച്ച് നോക്കാം പിന്നെ ആ അതെ അതെ ആ അപ്പം അത് നമ്മക്കിവിടെ ചെയ്യാം കുഴപ്പോന്നൂല്ല പിന്നെ ഒഡിറ്റോറിയത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസമോ അല്ലെങ്കിൽ രണ്ടൂസം മുന്നേ വന്നിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടൊന്ന് വിളിക്കാം ഇതൊന്ന് ഞാൻ വിളിക്കാം